പ്രാദേശിക പത്രങ്ങളിലൂടെ നമ്മൾക്ക് ഒരു പാട് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്ക്ന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അവസ്ഥയില് പ്രകൃതിദുരന്തങ്ങള് കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നിരന്തരം കണ്ടുകൊണ്ടിരിക്കയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങള് ഉണ്ടാകുമ്പോഴും അതിൻ്റെ കാര്യ കാരണങ്ങൾ സഹിതം എല്ലാ ആൾക്കാര്ക്കും മനസിലാകത്തക്ക രീതിയില് പത്രങ്ങളിലൂടെ നമ്മൾക്ക് അത് ആ അറിവ് നൽകി നൽകുന്നുണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് ആ അറിവ് പകരാൻ മാധ്യമങ്ങള് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങള് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സൂചനകള് നമ്മൾക്ക് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയാണ് ലഭിക്കാറുള്ളത് ഉരുൾപൊട്ടല് മണ്ണിടിച്ചില് അതുപോലെ ശക്തമായ മലവെള്ളപ്പാച്ചിലുകള് വെള്ളപ്പൊക്കം ചുഴലി കാറ്റുകള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ മുൻകൂറായിട്ട് അറിയിക്കുകയും ഇതുണ്ടായതിന് ശേഷം അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ അനുഭവങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനു മുഖ്യ പങ്കാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ജനങ്ങൾക്ക് പല വിധത്തിലും ജീവിക്കാൻ ബുദ്ധിമുട്ടുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുന്നതനുസരിച്ച് നമ്മളുടെ കൃഷി രീതികളില് കുറിച്ച് വള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ കൃഷികൾക്കുണ്ടാകുന്ന നാശങ്ങള് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന കേടുകള് ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇതിനേക്ക്യാ എങ്ങനെ അതിജീവിക്കണം ഇന്ന ഇന്ന രീതിയിലുള്ള ദോഷങ്ങൾ നമ്മൾക്കുണ്ടാകും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നേനുള്ള പങ്ക് മാധ്യമങ്ങളിലൂടെ നമ്മള്ക്കു കിട്ടുന്നുണ്ട് നമ്മളുടെ പത്രങ്ങൾ നമ്മള്ക്ക് തരുന്ന അറിവ് അത് വളരെ വലുതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടിത്തങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളെ ബോധവാന്മാരാക്കുന്നതില് മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ വാർത്താ മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങള് നമ്മെ വളരെയധികം വിഷമിപ്പിക്കുകയും അതുപോലെ തന്നെ അത് ഉണ്ടാകാനുണ്ടായ കാരണങ്ങള് എന്താണെന്ന് നമ്മള്ക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെയുള്ള അറിവാണ് ഈ അറിവ് നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മള് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മനോരമ ദീപിക ഇങ്ങനെയുള്ള പത്രങ്ങളിലൂടെ നിരന്തരം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള എല്ലാ പത്രങ്ങളും നമ്മള് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കാരണം നമ്മളെ ബോധവാന്മാരാക്കുന്നത് നമ്മൾക്കുണ്ടാകുന്ന വിഷമങ്ങള് മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമങ്ങള് അത് മൂലം നമ്മുടെ നാടിനുണ്ടാകുന്ന ഈ പ്രകൃതിക്കുണ്ടാകുന്ന നഷ്ടങ്ങള് എത്രയാണെന്ന് നമ്മളെ അറിയിച്ച് കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മുടെ മാധ്യമത്തില്ലെ അതിന് വഹിക്കുന്ന പങ്ക് എത്ര വിവരിച്ചാലും മതിയാകില്ല കാരണം പ്രകൃതി ദുരന്തങ്ങള് ഉണ്ടാകുമ്പോഴും അതിന് ശേഷവും അതിൽ നിന്ന് എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് ഏത് തരത്തിൽ നമ്മൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും എന്നും നമ്മളെ ബോധവാന്മാരാക്കുന്നതില് മുഖ്യ പങ്ക് മാധ്യമങ്ങൾക്കാണുള്ളത് ഈ പ്രമുഖ മാധ്യമങ്ങൾ ദിവസവും നമ്മളെ ബോധവാന്മാരാക്കുന്നതിലൂടെ നമ്മള്ക്ക് ഒരുപാടൊരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും സാധിക്കുന്നുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങള് നമ്മെ മനസിലാക്ക് നമ്മുക്ക് അറിയുവാൻ തക്കവണ്ണം നമ്മളെ ബോധവാന്മാരാക്കുന്നത് മാധ്യമത്തിലൂടെയാണ് ഇപ്പോള് ചെന്നൈയില് തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രകൃതി ദുരന്തം അതുപോലെ തന്നെ വയനാട് നടന്ന പ്രകൃതി ദുരന്തങ്ങള് അതുപോലെ ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങള് അപകടങ്ങളും നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ന് ലോക ജനതയ്ക്കു തന്നെ വളരെ വിഷമം പിടിച്ച ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടിരിക്കുകയാണ് അപ്പോള് അതിനകത്തുണ്ടാകുന്ന ആ വിഷമങ്ങള് അല്ലെങ്കിലാ കാലാവസ്ഥാ വ്യതിയാനങ്ങള് എന്തുകൊണ്ടാണുണ്ടാകുന്നത് എങ്ങനെയാണുണ്ടാകുന്നത് അത് ജനങ്ങളെ ബോധവാന്മാരാക്കി അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നത് ഈ മാധ്യമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മാധ്യമങ്ങളെ നമ്മളെത്ര അഭിനന്ദിച്ചാലും എത്ര പറഞ്ഞാലും മതിയാകില്ല മാധ്യമങ്ങൾ നമ്മൾക്ക് നൽകുന്ന സംഭാവനകള് അത്ര വലുതാണ് പ്രകൃതി ദുരന്തം മൂലം കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് മറ്റുള്ളവരെ അവർക്ക് വേണ്ട സഹായങ്ങളെത്തിക്കുവാനും അവരെ ഉചിതമായ സമയത്ത് സഹായിക്കുവാനും ഒക്കെ മാധ്യമങ്ങൾ നമ്മളെ ഓരോരോ മാർഗങ്ങളിലൂടെ അത് പറഞ്ഞു തരികയും അതിനുള്ള വഴികൾ തുറന്നു തരികയും ഒക്കെ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലകളിലും എല്ലാം മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എത്ര പുകഴ്ത്തണം എങ്ങനെ പറയണമെന്ന് നമ്മൾക്കറിയില്ല